അതെ അശ്വിന് ബേക്കേര്സ് ആണ് സാറേ സാറിന് എന്താണ് വേണ്ടത് ആ സാറിന് ഏത് ടൈപ്പാണ് കേക്ക് വേണ്ടത് ഇവിടെ റെഡ് വെല്വറ്റ് ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് പീനട്ട് ബട്ടര് സ്കോച്ച് ഉണ്ട് ഇതെല്ലാം ഉണ്ട് സാര് സാറിന് ഏത് ടൈപ്പ് കേക്കാണ് വേണ്ടത് ഓ ചോക്ലേറ്റ് ടൈപ്പ് കേക്കും ഇവിടെ അവൈലബിൾ ആണ് സാര് സാറിന് ചോക്ലേറ്റ് ടൈപ്പില് എന്താണ് ടൈപ്പ് എന്ത് ഒക്കേഷനാണ് സാറിന് ഈ കേക്ക് വേണ്ടത് ബര്ത്ത്ഡേ ആന്റോ സെലിബ്രേഷന് വെഡ്ഡിംഗ് ആനിവേഴ്സറി വെഡ്ഡിംഗ് ഇതിന് ഏതാണ് സാര് കേക്ക് വേണ്ടത് ഓ ഗേള്ഫ്രണ്ടിന്റെ ബര്ത്ത്ഡേയ്ക്ക് ആണോ സാര് ഓക്കേ സാര് സാറിന് ഗേള്ഫ്രണ്ടിന്റെ പേര് എന്താണ് ആഹ് സാറിന് ഏത് ടൈപ്പ് കേക്ക് ആണ് താല്പര്യം സ്ക്വയര് ടൈപ്പ് ഹാര്ട്ട് ഷേപ്പ് ആന്ഡ് സര്ക്കിള് ഷേപ്പ് ഇതില് ഏത് ടൈപ്പ് ആണ് ഒഹ് ഹാര്ട്ട് ഷേപ്പ് കേക്ക് ആണ് സാര് സാറിന് ഫോട്ടോ ആഡ് ചെയ്യാന് താത്പര്യം ഉണ്ടോ ആ ഫോട്ടോ ആഡ് ചെയ്യാം ആ ഫോണ് അത് വയ്ക്കാനുള്ള ഓപ്ഷന് ഉണ്ട് സാര് സാര് ഇവിടെ കൊണ്ടു തന്നാല് മതി ആ ഇല്ല സാര് നമുക്ക് ഏത് ടൈപ്പ് കേക്കില് വേണമെങ്കിലും ചെയ്യാം അത് സ്ക്വയര് ടൈപ്പ് ആയിരിക്കും കുറച്ചു കൂടെ കണ്വീനിയന്റ് ആയിട്ട് ആ ഓക്കേ സാര് നമുക്ക് അത് ചെയ്യാം സാര് സാറിന് എത്ര കേജി ആണ് വേണ്ടത് മൂന്ന് രണ്ട് കെജിയിലാണ് ഇത് മിനിമം ചെയ്യാന് പറ്റുക സാര് രണ്ട് കേജിക്ക് നാലായിരം രൂപയാണ് വരുന്നത് പക്ഷെ നമ്മൾ സ്പെഷ്യല് പ്രൈസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ചെയ്തു തരുന്നതാണ് സാര് നമ്മള് എല്ലാ വര്ത്തും അവൈലബിള് ആണ് ഞങ്ങളുടെ ബ്രാഞ്ചുകള് ഇവിടെ കേണിച്ചിറ മാനന്തവാടി എന്നിവര് തങ്ങളിൽ എല്ലാമുണ്ട് വയനാട്ടില് എവിടെയാണ് സാര് ഞങ്ങള് ഡെലിവറി ചെയ്യുന്നതാണ് സാര് ലോക്കേഷൻ എല്ലാം നമുക്ക് മെസേജ് ചെയ്തിട്ടാല് മതി ഓക്കേ സാര് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ട് എപ്പോഴാണെന്ന് വച്ചാല് തീരുമാനിച്ചാല് മതി സാര് ആ യാ സാര് നമ്മള് ഹോമിലും ഹോട്ടലിലും എല്ലാഇടത്തും ഡെലിവറി ഉണ്ട് സാര് നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാം വയനാട്ടിൽ പോസ്സിബില് ആണ് ഫ്രീ ഡെലിവറി ആണ് സാര് അങ്ങനെയൊന്നും വരികയില്ല സാര് ഹാവ് ഏ ഗുഡ് ഡേ സാര് ഓ രണ്ട് കേക്ക് വേണം സാര് രണ്ടും സെയിം കേക്ക് വേണോ

സാര് ലൊക്കേഷന് അയച്ചാല് മതി ഞങ്ങള് ഡെല്വറി ചെയ്തു തരാം അടുത്ത കോളിനുള്ള സമയമായി ഓക്കേ സാര്